ഹലോ ഓറഞ്ച് സ്റ്റുഡിയോ ആയിരുന്നു ആരാണ് സംസാരിക്കുന്നത് ആ ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് വരുന്നത് എൻഗേജ്മെൻറ്റ് അടക്കമാണോ

ആ വേഴ്സാ നമുക്കിപ്പോൾ ഇത് രജിസ്റ്റര് ചെയ്തൂന്ന് വെച്ചാൽ പോസ്റ്റ് വെഡ്ഡിങ്ങും പ്രീ വെഡ്ഡിങ്ങ് എല്ലാം കൂടെ വരുമ്പമൊരു വൺ ലാക്കിനടുത്ത് വരും ആ അപ്പം നിങ്ങൾക്കി ആൽബമോക്കെ വേണ്ടേ ആൽബോ ആ ഓക്കെ വീഡിയോ ആണോ അതോ സ്റ്റില്ല് മാത്രമാണോ അതോ വീഡിയോയും വേണോ ആ ഓക്കെ ആ അപ്പോൾ എന്തായാലും വൺ ലാക്കിനടുത്താകും

അല്ല നിങ്ങൾ പറയുന്ന സ്ഥലമായാലും കുഴപ്പമില്ല ഇപ്പോൾ ഞങ്ങൾ ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങൾ വേണമെങ്കിൽ റെഫറ് ചെയ്യാം നിങ്ങൾക്കത് പറ്റുമെങ്കിൽ നിങ്ങളതാക്കുവോ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാലും കുഴപ്പമില്ല നമ്മളിപ്പം ആ നിങ്ങളിപ്പം നമ്മുടെ കാലിക്കട്ട് തന്നെയാണെങ്കിൽ കുറച്ചൂടെ കുറയും കാരണം അധികം ദൂരത്തേക്ക് ഇപ്പോൾ മൂന്നാർ അങ്ങനെ സ്ഥലങ്ങളിൽ പോകണ്ടെങ്കിൽ കുറച്ചൂടെ കുറയും ഫിക്സഡ് അല്ല നമുക്കെന്താണ് പാറയ്കാ ഒരു ഡൈനാമിക്ക് ആണ് കാരണം നമ്മൾ എന്താ പറയാ എടുക്കുന്നേനനുസരിച്ച് ഇപ്പോൾ ഒറ്റ ദിവസം കൊണ്ടെല്ലാം തീരുവാണെങ്കിൽ കുഴപ്പമില്ല ആ ഓക്കെ ആ ഓക്കെ ഇപ്പം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കോസ്ട്യൂമാണോ ഉള്ളത് ഇപ്പം പോസ്റ്റ് വെഡ്ഡിങ്ങിനൊക്കെ വൺ കോസ്ട്യൂമാണോ ഉള്ളത് പോസ്റ്റ് വണ്ണും പ്രീ വെഡ്ഡിങ്ങിനുമൊക്കെ ആ ഓക്കെ ഓക്കെ അപ്പോൾ എന്തായാലുമൊരു വൺ ലാക്കിനടുത്ത് വരും

ഞങ്ങൾ മൂന്ന് പേരാണുണ്ടാവുക

ആ ഫുഡ്ഡും ആ കാര്യങ്ങളും അക്കോമഡേഷനും ഞങ്ങൾ നോക്കിക്കൊള്ളാം ആ അതെ അതെതെ ആ വെഡ്ഡിങ്ങ് ആ വെഡ്ഡിങ്ങ് ഡേയ്ക്ക് നിങ്ങളപ്പം വീഡിയോ ഒന്നുണ്ടാവും പിന്നെ രണ്ട് സ്റ്റിലാണുണ്ടാവുക പിന്നെ ഞങ്ങടെയൊരസിസ്റ്റന്റ് നാല് പേരാണ് നാല് പേരായിരിക്കും വെഡ്ഡിങ്ങ്ന് വരിക ആ അതെ അതെ ആ അതെ അതെയെല്ലാം എല്ലാം ആ എല്ലാം ഈ ഏതു മന്തായിരുന്നു വരുന്നത് എൻഗേജ്മെന്റ് അത് അടുപ്പിച്ച് തന്നെയാണോ ആ മാരിജ് വരുന്നത് ആ ഓക്കെ അപ്പം എല്ലാം പെട്ടന്ന് എടുത്ത് തീർക്കാനുണ്ടല്ലേ

ആ ഓക്കെ നമുക്കെന്തായാലും ഒരു മോണിങ്ങൊക്കെ പോയെടുക്കാം ഫോട്ടോ കാരണം ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നോക്കണ്ടേ ഇല്ല നിങ്ങൾ വരുന്നെന്ന് മതി അപ്പോൾ നിങ്ങളെന്നാണോ ഷൂട്ടിങ്ങ്ന് വരുന്നത് അന്നെടുത്താൽ മതി

ഇല്ലില്ലാ നിങ്ങൾ ആൽബം തരുമ്പഴേക്കും ഫുൾ എമൗണ്ട് തന്ന് തീർത്താൽ മതി പിന്നെ ഫുള്ളായിട്ട് വേണ്ടാ ഒരു പകുതി ബാക്കി ആൽബം തരുന്നതിനു മുമ്പായി തന്ന് തീർത്താൽ മതി ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ആ ഓക്കെ